ഓണത്തിന് ഞങ്ങൾ വിഭവം അത് ഉത്സവം ഓണം ഒരു ദേശീയ ഉത്സവമാണ് അതിന് ഞങ്ങൾ അതിനു പലഹാരം പലഹാരം പായസം ഉണ്ടാക്കും പിന്നെ ഉപ്പേരി ശർക്കര വരട്ടി അതുകൂടാതെ കളി അടയ്ക്കാന്ന് പറഞ്ഞ ഒരു സാധനം അരി കൊണ്ട് അത് അരി അരച്ച് അരി അരച്ചത് വെള്ളത്തിലിട്ട് അരച്ച് തേങ്ങയൊക്കെയിട്ട് അത് ഉരുട്ടി എടുത്തതിന് ശേഷം അത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഉരുട്ടി അതിനെ കളിയടയ്ക്ക എന്നാണ് പറയുന്നത് അതുകൂടാതെ ദീപാവലിക്ക് നമ്മൾ മധുര പലഹാരം ഉണ്ടാക്കാറുണ്ട് വിഷുവിൻ്റെ സമയങ്ങളിൽ അട വിഷു അട ഉണ്ടാക്കാറുണ്ട് അത് അരി പൊടിച്ച് അതിനകത്ത് ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ച് അട എല് വാഴയിലയിൽ അട പു അട ഇത് പരത്തി അട ഇത് പുഴുങ്ങിയെടുക്കാറുണ്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാറുണ്ട് അവരുടെ ഇത് ക്രിസ്മസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ നമ്മളെ നമുക്ക് അവരുടേതായ ഇ ഇത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് അതുതന്നെയല്ല നമുക്ക് ക്രിസ്തുമസിന് ക്രിസ്തുമസിന് നമ്മൾ വീട്ടിൽ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഏത് ആഘോഷങ്ങളും നല്ല നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്